ആ ഹലോ അതെ മാഡം ആരാണ്

ഓ പ്ളെയ്സ് ഒന്ന് പറയാമോ മാഡം ആ കാവ്യ അല്ലേ ആ എനിക്ക് ഓർമ്മ ഉണ്ട് ആ ആ ആ ആ ഓക്കെ താങ്ക് യു ആ അയ്യോ ആ ആ ആ ബിസി ആയിരുന്നു മാഡം അത് ആ റെഡ് കളറ് സാരിയല്ലേ ആ അതെ അയ്യോ സോറി മാഡം അത് നല്ല ചിലവ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഐറ്റം അത് മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലായത് കൊണ്ട് നല്ല പോലെ ഒരുപാട് പേര് വാങ്ങിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം അതിൻ്റെ സ്റ്റോക്ക് തീർന്ന് ഇരിക്കുകയാണ് മാഡം സോറി ഇപ്പം അടുത്ത മന്ത് വരും എന്ന് പറയുന്നത് അപ്പം സാരി മൊത്തം ടോപ്പ് എല്ലാം ഏകദേശം നല്ല മെറ്റീരിയൽ എല്ലാം തീർന്ന് ഇരിക്കുകയാണ് അപ്പം ഇനി പുതിയ സ്റ്റോക്ക് വരുമ്പം അതിൽ മാഡത്തിന് കുറച്ച് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും ഇവിടെ ഇരിക്കുന്നതൊക്കെ പഴയ കളക്ഷൻസാണ് അപ്പോ ൾ പുതിയത് വരുമ്പം ഞാൻ നമ്പറ് തന്നിട്ട് പോയാൽ ഞാൻ കോൺടാക്ട് ചെയ്യാം ആണോ ഞാൻ ഇവിടെ തിരക്കിലാണ് ആ ഞാൻ തിരക്കിലാണ് ആ ആ ആ ടോപ്പ് നമ്മളിവിടെ സ്റ്റാർട്ടിംഗ് ടോപ്പിൻ്റെ റേറ്റ് ടു ഡബിൾ നൈൻ ആണ് ആ സ്റ്റാർട്ടിംഗ് റേറ്റ് അതാണ് പിന്നെ നമ്മൾ ക്വാളിറ്റി മെറ്റീരിയല് അനുസരിച്ച് റേറ്റ് മാറി മാറി പോവും അതിൻ്റെ വർക്ക് അനുസരിച്ചൊക്കെ വർക്കിംഗ

ആ ഓക്കെ ഞാൻ ഇപ്പോൾ പറയണം എന്ന് ഉണ്ടോ മാഡം ഇപ്പോൾ ഞാനിത് ഞങ്ങൾ ഒരേ സെക്ഷനാണ് അപ്പം ഒരു വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് പറയാം വെയിറ്റ് ചെയ്യണം കേട്ടോ ആ ഓക്കെ ആ മാഡം ഹലോ ആ നമ്മൾ സാരിക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ആയിരം ആണ് തുടങ്ങുന്നത് കാരണം അതിൻ്റെ ഒരു ലുക്കും പിന്നെ ആ ഒരു മെറ്റീരിയലൊക്കെ വച്ചിട്ടാണ് നമ്മളെ റേറ്റ് കൂടുതലെന്ന് വച്ച് മാം വിഷമിക്കേണ്ട കാര്യം ഇല്ല കാരണം നല്ല മെറ്റീരിയലാണ് ഒരുപാട് ലോംഗ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഓക്കെ മാം ഒരു കാര്യം ചെയ്യുക അടുത്ത ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഞാൻ മാമിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് മന്ത് പുതിയ ഇത് ഒക്കെ വരും അപ്പോഴത്തേക്കും മാം വന്ന് കഴിഞ്ഞാൽ മാമിന് ഇഷ്ടപ്പെട്ട് നോക്കി എടുക്കായിരുന്നു ഓക്കെ സമയം കിട്ടുമ്പോൾ വന്നാൽ മതി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു